എറണാകുളത്തെ സർക്കാറോഫീസുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം എല്ലാവരും ഒരുപോലെയൊന്നും അല്ല ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് അർഹയായിട്ടുള്ള അർഹതപെട്ടിട്ടുള്ള എല്ലാ നിയമവശങ്ങളും അല്ലെങ്കിലെല്ലാ കാര്യങ്ങളും നമുക്ക് ലഭ്യമാകുന്ന ഓഫീസുകളും ഉണ്ട് അത് കൂടാതെ എത്രപ്രാവശ്യം നമ്മളൊരു കാര്യത്തിന് ചെന്നാലും ഒരു നീക്കുപോക്കും നടക്കാത്ത കുറെ ഓഫിസുകളുവുണ്ട് രണ്ട് വിഭാഗക്കാരുവുണ്ട് അപ്പം എനിക്ക് ഒരണ്ണത്തിലേക്ക് കൂട്തലായിട്ട് പറയാനായിട്ടില്ല രണ്ടും ഈക്ക്വലായിട്ടന്നെയാണ് എനിക്ക് തോന്നീട്ടുള്ളത് കൂട്തലായിട്ടും ഞാൻ കുറെ നാളായി സർക്കാർ ഓഫീസുകൾളൊന്നും കയറി ഇറങ്ങാറില്ല ഇറങ്ങീട്ടിപ്പം ഒരു മൂന്നാലഞ്ചു വർഷമായി ഇപ്പം അച്ഛൻ്റെ മരണം സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങാനും അതേപോലെ അമ്മേടെ പെൻഷൻ്റെ കാര്യത്തിനുമൊക്കെയായിട്ടാണ് കുറെ നടന്നത് ഒരുപാട് രേഖകളും കാര്യങ്ങളുവൊക്കെ അന്നൊന്നും എനിക്ക് ജോലിക്കുപോവണ്ട് ഇരിയ്ക്കേണ്ട അവസ്ഥ വന്നു അതായത് വീട്ടിൽ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തായിരുന്നു അത് അതുകൊണ്ട് എനിക്കതിന് സമയം കിട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനുവൊക്കെ പക്ഷേ ഒരൂ ജോലിക്കുപോയി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴാണ് എനിക്ക് അത് ചെയ്യേണ്ടിവരുന്നത് എങ്കിൽ എനിക്കൊരിക്കലും അത് ചെയ്യാൻ നടക്കാൻ സാധ്യതയില്ല കാരണം നമ്മുടെ പകൽ സമയത്ത് ജോലികളഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുമാസത്തെ ശമ്പളമായിരിക്കും നഷ്ടപ്പെടുന്നത് അതുമാതിരിയാണ് ഓരോ ഓഫീസുകളും കാണിച്ച് കൂട്ടുന്നത് അപ്പം അതിനകത്ത് വളരെയധികം സങ്കടം ഖേതം പ്രകടിപ്പിക്കുന്നുണ്ട്